ശരിക്കും പറഞ്ഞ ഞങ്ങളുടെ അവിടുത്തെ പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റൊരു ലേഡിയാണ് പുള്ളിക്കാരിത്തീടെ പേര് ശോശാമ്മ എന്നാണ് പുള്ളിക്കാരത്തി ഭയങ്കര കമ്പനിയാണ് എല്ലാവരോടും ഇടപഴകുന്ന രീതിയാണേലും ഭയങ്കര കമ്പനിയാണ് ഭയങ്കര ഫ്രണ്ട്ലിയായിട്ടുള്ള രീതീലിടപഴകത്തൊള്ളു ആർക്കുമൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതീൽ വാക്കോണ്ടൊന്ന് സംസാരിക്കാറില്ല ഞങ്ങൾ ഇങ്ങനെ ഇപ്പം നമുക്ക് ഇവിടെ വെള്ളപ്പൊക്ക പ്രദേശം കുട്ടനാടേരിയായോണ്ട് വെള്ളപ്പൊക്കത്തിൻറ്റെ ഭീഷണിയുണ്ടാകുമ്പോൾ ഇടക്കൊക്കെ ഞങ്ങളെ വിളിച്ച് അന്വേഷിക്കാറുണ്ട് എങ്ങനുണ്ട് വെള്ളം കയറുന്നുണ്ടോ എന്തേലും അവശ്യമുണ്ടോ എന്താ നിങ്ങൾക്ക് എന്തേലും ഭക്ഷണ സാധനങ്ങൾ ആവശ്യമുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളിടയ്ക്ക് വിളിക്കാറുണ്ട് അതോണ്ടൊക്കെ ഞങ്ങളുമായിട്ട് ഭയങ്കര കമ്പനിയാണപ്പം ഞാനീയിടെയൊരു റോഡിൻറ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളുടെ വഴീടെ റോഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഈയിടെ പുള്ളിക്കാരത്തിയെ വിളിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലിയായിട്ട് രീതീലാണ് ഞങ്ങളോട് സംസാരിച്ച ഒരു അയ്യോ ഇപ്പോൾ പറ്റത്തില്ല അങ്ങനെയൊരു വാക്ക് പറയാതെ ഓക്കേ സോറി ഓക്കേ ചെയ്യാം ശ്രമിക്കാം എന്നുള്ള രീതീൽ ഭയങ്കര ഫ്രണ്ട്ലിയായിട്ടാണ് സംസാരിച്ചത് അതുമല്ല ഇപ്പം നമ്മൾ ഇപ്പം അത് മറന്ന് പോയെന്ന് വിചാരിച്ചാലും പുള്ളിക്കാരത്തി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയും ഇന്ന ദിവസം അതിനാൾക്കാർ വരും ആരേലും നിങ്ങൾ അവിടെച്ചെന്ന് നിൽക്കണം നിങ്ങൾ അതിന് ചെയ്യണതൊക്കെ കുറെ പല കാര്യങ്ങളും ഇപ്പം ഞങ്ങളുടെ സ് അടുത്ത് ഞങ്ങടെയൊരു സ്നേഹതീരോന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടത്തേക്ക് പ്രദേശവാസികളുടെ ഞങ്ങളുടെ വാർഡ് പ്രസിഡൻറ്റല്ലേ അപ്പം പ്രദേശവാസികളുടെ വകയായിട്ട് ആൾക്കാർ സാധനങ്ങൾ കൊടുക്കാനായിട്ട് ഞങ്ങളെന്നാ ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവർ സഹായമൊക്കെ ചെയ്ത് തന്നു പിന്നെ വെള്ളം പൊതു വെള്ളത്തിൻറ്റെ വെള്ളം വരവ് ചില വാൾവിലോട്ടൊന്നും ചില സ്ഥലത്തോട്ടൊന്നും കിട്ടുന്നില്ല അപ്പം ചില വാർഡിലെ ആൾക്കാരിപ്പം നമ്മളെ വിളിച്ച് പറഞ്ഞാൽ നമ്മളിപ്പോൾ അത് ഉടനെ പ്രസിഡൻറ്റിനെ അറിയിക്കുമ്പോൾ പുള്ളിക്കാരത്തി അത് ചെയ്ത് തരാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പം എന്ത്കൊണ്ടും ഞങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് നല്ല ക്ലോസായിട്ട് നിൽക്കുന്ന പിള്ളേരൊടാണേലും ആരോടാണെലും മുതിർന്നവരോടാണെലും ഇടപഴകേണ്ട രീതിയറിയാവുന്നൊരു നല്ല മേടവാണ്